വിനോദസഞ്ചാരികൾക്ക് ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റോം പ്രധാനപ്പെട്ട മീൻ ഇൻ്റെ പല ഡിഷുകളുണ്ടാക്കാറുണ്ട് ഒന്നാമതായി മീൻ പാല് പിഴിഞ്ഞ് വെച്ച് കറി പിന്നെ മസാല പുരട്ടീട്ട് വറക്കും അത് കൂടാതെ ഇലയിൽ പൊതിഞ്ഞിട്ട് മീൻ മസാലയക്കെ പുരട്ടി ഇലയിൽ ഇല യെല് വാട്ടീട്ട് ഇലയിൽ പൊതിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു മീൻ വറത്ത് കൊടുക്കും പിന്നെ അത് കൂടാണ്ട് വറത്തരച്ച് മീങ്കറി വെക്കും കപ്പേം മീങ്കറീം അതൊരു ഡിഷായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ കോഴി ചിക്കൻ കൊണ്ട് രണ്ട് തരത്തിലിണ്ടാക്കാറുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈയിണ്ടാക്കാറുണ്ട് ബീഫ്ഫ് കൊണ്ട് ബീഫ്ഫ്രൈ ഇണ്ടാക്കാറുണ്ട് പിന്നെ ചോറ് കുത്തരിച്ചോറും പിന്നെ വെള്ള അരീടെ ചോറ് അങ്ങനെ രണ്ട് സൈസ്സ് പിന്നെ പപ്പടം പ്രധാനപ്പെട്ട എല്ലാത്തിനും തന്നെ പപ്പടമുണ്ട് അങ്ങനെ അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കറികൾ അത് വീട്ടിലുവുണ്ടാക്കുന്നത്ണ്ട് ഹോട്ട് സ്റ്റാള്കൾ വെച്ചിട്ട് അവിടേം ഉണ്ടാക്കി കൊടുക്കുന്നു ഉണ്ട്